അപ്പം കുട്ടിക്കാലത്ത് ചരിത്ര പഠനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ചരിത്രത്തെ കുറിച്ച് പഠിക്കുന്നതെന്നു വെച്ചു കഴിഞ്ഞാൽ പഴശ്ശിരാജയുടെ ചരിത്രം കുട്ടിക്കാലം അതായത് പ ആ ഒരു ചരിത്രമാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടു വരുന്നത് അതിനു ഉദ്ദേശിച്ച് ഒരു നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ച ഒരു പടം വരെ ഇറക്കീട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആണ് കുട്ടികൾക്കും എല്ലാവർക്കുമൊരു മാതൃകയായിട്ടു വന്നത് പിന്നെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമി എന്ന് പറഞ്ഞിട്ട് അതായത് ഉറുമിയിൽ ഉറുമിന്ന് പറഞൊരു പടം ഇറങ്ങീട്ടുണ്ടായിരുന്നു അതും ഈ ചരിത്രത്തെ കുറിച്ച് തന്നെയാണ് പിന്നെ അതൊക്കെ നല്ല രീതിയിൽ അതായത് ചരിത്രം അതായത് നമ്മുടെ വയനാടും ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിലായിരുന്നു അപ്പം അവിടുന്ന് നമ്മളെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് ഈ പഴശ്ശിരാജ എന്നു പറഞ്ഞ ആ രാജാവാണ് അപ്പം പുള്ളിനെ വെച്ചിട്ടാണ് നമ്മളെ രാജ്യം എന്താ പറയാ നമ്മളെ വയനാടിനെ എന്താ പറയാ കീഴടക്കിയത് ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചനം നേടിയത് പണ്ടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴ്ന്ന ജാതിക്കാരെ ഇവർ അടിമകളാക്കി പണിയെടുപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു ഇതൊക്കെയാണ് മെനായിട്ടുള്ള ചരിത്രം എന്നൊക്കെ പറഞ്ഞാൽ